അതെ ഹലോ ആ അതെ എൻ്റെ വീട്ടിൽ ഒരു സ്റ്റോർ റൂം പണിയാൻ ആണ് അപ്പോൾ റേറ്റും കാര്യങ്ങൾ ഒക്കെ എത്ര ആവുമെന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് അതെ ആ മുകളിലാണ് ആ സ്റ്റോറ് റൂമ് ചെറുത് മതി ആ അതെ ആ എത്ര ആവും എന്നാലും

ആ അതെ ആ ഹോളോബ്രിക്സ് മതി അത് അത്രെ കുഴപ്പം ഇല്ലാന്ന് തോന്നുന്നു ആ സിമൻറ്റോ ആ ആ

ആ അതെ ചേട്ടന് പരിചയം ഉള്ള ആരെങ്കിലും ഉണ്ടോ എല്ലാം അടയ്ക്ക് ആ കല്ല് അടിക്കാനും സിമൻറ്റ് ഒക്കെ അടക്കാനും അതെ പരിചയം ഉള്ള ഒരാൾ ആ ആരേലെങ്കിലും അറിയുമോ അങ്ങനെ എന്തെങ്കിലും ആ ചേട്ടൻ ആയിട്ട് കുഴി എടുത്തിട്ട് തന്നാൽ മതി

ആ ഓക്കെ ആ ആ ആ അപ്പോൾ വർക്ക് വെരുവാണെങ്കിലും കൂടെ ആരേലും ഉണ്ടാവുമോ എത്രയാണ് പേര് രണ്ട് പേര് ഉണ്ടാവുമോ ആ ആ ആ ആ ഹ്മ് അവർക്കൊക്കെ അപ്പോൾ എത്രയാണ് വർക്ക് പൈസ എത്രയാണ് കൊടുക്കണ്ടത് ഒരാൾക്ക് ആ ആ ആ ഓക്കെ ഇപ്പോൾ ചേട്ടൻ ഡെയിലി ഉണ്ടാകുമോ അതോ മെയിൻ ആയിട്ട് നിൽക്കുന്ന ആൾ ആണോ ആ ഓക്കെ ഓക്കെ

ആ ആ പെട്ടെന്ന് തീർക്കണമെന്ന് ഉണ്ട് ഒര് രണ്ട് ദിവസത്തിന് ഉള്ളിൽ തീർക്കണമെന്ന് ഉണ്ട് അടുത്താഴ്ച ഒര് ഫംഗ്ഷൻ ഉണ്ട് വീട്ടില് അപ്പോൾ അത് എല്ലാം സെറ്റ് ചെയ്തൂന്ന് അറിഞ്ഞാൽ പിന്നെ കുഴപ്പം ഇല്ലല്ലോ അതുകൊണ്ടാണ് ആ ആ ഓ ആ ഓക്കെ ആ ആ രാവിലെ വരുമോ രാവിലെ വരുമോ കല്ല് അടിക്കാൻ അവര്

ആ ശരി ശരി ശരി ആ ആ ഓക്കെ

ഉം ഉം ശരി